ഹോസ്പിറ്റലിൻ്റെ കേസ്ന്ന് പറയുമ്പം നമുക്ക് അവിടെ ഗവർമെൻ്റ് ഗവർമെൻ്റുണ്ട് ഇപ്പം ഇപ്പം ഇപ്പോൾ ഗവർമെൻറ്റൊക്കെ നല്ല രീതിക്ക് ക്ലീനായിട്ട് ഡെവലപ്പായിട്ട് വരുന്നുണ്ട് ഒരു പ്രൈവേറ്റിൻ്റ ഒരു ലെവലെത്താൻ പറ്റീല്ലേലും പക്ഷേ അതിനൊപ്പം വരും വരാൻ ശ്രമിക്ക് ശ്രമിക്കുന്നുണ്ട് അവർ ഗവർമെൻന്റ് ഹോസ്പിറ്റൽസ് അതൊരു നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു എന്താ ഗവർമെൻന്റ് ഹോസ്പിറ്റൽസ് മോശവാ ഇങ്ങനെ അങ്ങനെ ഒക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഞാനും രണ്ട് മൂന്ന് പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് വലുതായിട്ട് ഒന്നും പോയിട്ടില്ല നമുക്ക് അവിടെ അധികം നമ്മുടെ ഈ ഒരു മേഖലയിൽ പ്രൈവറ്റാണ് കൂടുതലപ്പോൾ പ്രൈവറ്റ് നീറ്റായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റൽല് പോവും പക്ഷേ ഗവർമെൻ്റാവുമ്പോൾ ഫ്രീയാണ് പാവപ്പെട്ടവർ എല്ലാം അവിടെയാണ് പോവുന്നത് മിഡിൽ ക്ലാസ്കാരും അത്യാവശ്യം അത് ഡിപ്പെൻസിപ്പോൾ പൈസ എന്താ ആ നമുക്ക് എന്താ പോവാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പി കാശൊക്കെ നോക്കീട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു ആ അതവർ പോവും പക്ഷേ നല്ല രീതിക്ക് വിലയാണേൽ അവർ ഗവർമെൻ്റ് ഗവർമെൻ്റിൽ തന്നെ പോട്ട് മിഡിൽ ക്ലാസ്സിൻ്റങ്ങനെ ഡിപ്പെൻഡൻ്റായിട്ടിരിക്കും പിന്നെ ആ നല്ലതാണ് ഹോസ്പിറ്റൽല് കോവിഡിന്റെ സമയത്ത് ഒക്കെ ഗവർമെൻറ്റ് ഹോസ്പിറ്റൽല് എന്തായാലും ഇതായിരുന്നു വാക്സിനൊക്കെ ഇതാ ഇതായിരുന്ന് ഇങ്ങനെ ഫ്രീയായിട്ട് ഇടുകയും ചിലത് മാത്രം ഇങ്ങനെ ചിലവർ ഇങ്ങനെ വിക്കാറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അത് വേറെ അത് ഞാൻ പറയുന്നില്ല പറഞ്ഞ് വേറെ കുറെ പ്രശ്നത്തിലോട്ട് പോവും പൈസ അടക്കണം അങ്ങനെ എന്താ സാധാ നോർമൽ പൈസ പൈസയിരുന്നു വില കൂടുതൽ കൂടി ഇങ്ങനെ അത് പറയുന്നില്ല അങ്ങനെ വില കൂടി വിൽക്കും അങ്ങനെ ഇങ്ങനെ വിളിക്കുക ആ അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സംഭവം വേറെ ആ ആ കാര്യത്തിലോട്ട് ഞാൻ കൂടുതൽ പോവുന്നില്ല പിന്നെ കോവിഡിൻ്റെ സമയത്ത് ഓക്കെ ആയിരുന്നില്ല ഞാൻ പോയ ഞാൻ ഫസ്റ്റ് വാക്സിൻ ഇവിടെ വീട്ടിൽ ഇരിക്കുമ്പോൾ വണ്ടി പെരിയാർൽ തന്നെയാണ് അടുത്ത സെക്കൻ വാക്സിൻ കോളേജ് ശേ കോളേജല്ലല്ലോ സ്കൂൾള് പ്ലസ് വൺ പ്ലസ് ടു കോട്ടയത്താ പഠിച്ചപ്പോൾ അവിടെ ഞങ്ങളെ കൊണ്ട് പോയി എടുക്കുക ആയിരുന്നു അവിടേം കുഴപ്പമില്ലായിരുന്നു ഹോസ്റ്റലുള്ള എല്ലാവരെയും വിളിച്ചോണ്ട് പോയി എടുത്തു കുറെ ഇങ്ങനെ വാക്സിനെടുക്കുന്നതിന് വലിയ കുഴപ്പം ഒന്നുമില്ലായിരുന്നു പക്ഷേ ആ വിലയുടെ കാര്യമാണ് ഇങ്ങനെ എന്താ ഇത് വാ കോവിഡിൻ്റെ വാക്സിൻ്റെ മാത്രല്ലേ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽലൊന്ന് വില ഒക്കെ കുറയ്ക്കാം അത് ഇപ്പോൾ എല്ലാവർക്കും വരുന്നത് പോലെ ഈ ഹോസ്പിറ്റൽന്ന് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടീട്ടാണല്ലോ എല്ലാവർക്കും വേണ്ടി ചികിത്സിക്കാനും എല്ലാത്തിനും അതിന്നാത്തിനൊരു ബിസ്നസ്സ് വലിയ ബിസ്നസാക്കിയെട്ക്കണം അത് നമുക്ക് നോർമൽ ഇപ്പോഴും കിട്ടുന്ന ഒരു പ്രൈസി അഫോഡബ്ളായിട്ടുള്ളോരു പൈസയിലാക്കുവായിരുന്നേ കൊള്ളാം ആയിരുന്നു ഇപ്പോൾ ഇതിന് ഇത്ര രൂപ ഈ ട്രീറ്റ്മെന്നത്ര രൂപ അത് ഒരു ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത് സർവീസാണ് ബിസ്നസല്ല ശരിക്കും പറഞ്ഞാൽ സർവീസ് ചെയ്യുമ്പോൾ സർവീസ് ചെയ്യുക എന്നാത്തിനാണ് അതിന്റെ ഇടക്ക് ബിസ്നസ്സ് കുത്തി കയറ്റുന്നത് ചുമ്മാ ഒരു ആവശ്യം ഇല്ലാതെ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ